എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പേനയും പേപ്പറിലും വച്ച് എഴുതണതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കുറേ എഴുതി എഴുതി എഴുതി എഴുതി നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഭാഗത്ത് നമ്മൾക്ക് തെറ്റുണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര ചിന്തിച്ചതിൽ എന്തൊക്കെ തെറ്റുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അങ്ങനെ കൂടുതൽ ലാപ്ടോപ്പിൽ ഞാന് വർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ചെയ്ത് വന്നിട്ട് മോസ്റ്റും ഞാൻ പേനയും പേപ്പറിലൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് ഇൻസ്പെയറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എഴുതാൻ തുടങ്ങി അവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള നാട്ടുകാരും ഇപ്പോൾ ഉള്ള ഒരു ഫാർമേഴ്സ് ആണെങ്കിലും അവര് എത്രത്തോളം വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവര് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ മറ്റുള്ളവർക്ക് അത് അറിയാനുള്ള ഒരു മനസ്സ് കാണിക്കണമല്ലോ അതിനു വേണ്ടി കുറേ എഴുതാൻ തുടങ്ങി അങ്ങനെ കുറേ ബുക്കുകളൊക്കെ എഴുതീട്ടുണ്ട്